വൈകീട്ടുള്ള വിനോദങ്ങളിൽ മക്കളെ ഏർപ്പെടുത്തിക്കഴിഞ്ഞാൽ അവർക്ക് മെൻറലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും എല്ലാ കാര്യത്തിലും അവർക്ക് നല്ലൊരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഇപ്പോഴത്തെ മക്കൾ വെച്ചാൽ വീഡിയോ ഗെയിംസിനും ടിവിയിലൊക്കെ അഡിക്ട് ആണ് അവർക്ക് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നിനും സാധിക്കില്ല അവർ ഡിപ്രഷനിൽ ആയിപ്പോകും അപ്പോൾ ഇങ്ങനെ വൈകീട്ടുള്ള കളികൾ നല്ലതാണ് നല്ലോണം കളിക്കുന്ന മക്കൾ ഉള്ളവർക്ക് മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കോച്ചിങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നേരെ അവർക്ക് തന്നെ വലിയ ഒരു ഉപകാരം ആവും അത് അവർക്ക് എവിടെ എങ്കിലും എത്തിപ്പെടാൻ പറ്റിയാൽ തന്നെ നമ്മുടെ നാടിനും വീട്ടുകാർക്കും ഒക്കെ ഒരു വലിയ ഒരു ഉപകാരം ആയിരിക്കും അത് അപ്പോൾ വൈകീട്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അവർക്ക് ഒരു ടൈം കൊടുക്കുക ഇന്ന ഏതാ ഇഷ്ടപ്പെട്ട ഗെയിം അത് കളിപ്പിക്കുക അവർക്ക് അതിൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്തുക എന്നിട്ട് അവർ എവിടെയേലും എത്തിപ്പെടുക എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ വൈകീട്ടുള്ള കളികളിൽ അവരെ വിടുക അതായിരിക്കും നല്ലത് പിന്നെന്താ പറയുക മക്കളിൽ ഇപ്പോഴേ അങ്ങനെ കഴിവ് ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് കൊണ്ട് വന്ന് നമുക്ക് ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു നേട്ടം ആയിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഗെയിംസ് ഇപ്പോഴേ കളിപ്പിച്ച് ശീലിപ്പിക്കുക അങ്ങനെ ഇതിപ്പോൾ ഗെയിംസിലൂടെ അവർക്ക് ഗെയിം മാത്രമല്ല പഠിത്തത്തിൽ ആയാലും അല്ലെങ്കിൽ ശാരീരികവും ആരോഗ്യപരവും ആയിട്ടുള്ള കാര്യത്തിലൊക്കെ കുറേ ഇംപ്രൂവ്മെൻറ്സ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ സെറ്റ് ആയിക്കോളും അവർക്ക് ഇപ്പോഴേ ഇങ്ങനെ കളിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ